കേരളത്തിലെ കരകൗശല മേഖല സാംസ്കാരത്തിൻ്റെ എന്താണ് സാംസ്കാരിക സമത്വത്തിൻ്റെ പ്രൈതൃകത്തിനെങ്ങനെ സംഭാവന ചെയ്യുന്നു ഞാനാൾക്കാര് ക്രാഫ്റ്റ് ചെയ്യുന്നതെന്നു വെച്ചാല് ഞാൻ ചെയ്യുന്നത് പേപ്പർ കട്ടിങ്സ് കൊണ്ടോരോ ഇതാ ചെയ്ത്വെക്കുന്നത് അല്ലാതെ ഞാൻ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കരാകൗശലമൊക്കെ വരുമ്പോള് കളിമണ്ണ് ഉപയോഗിച്ചും ചിരട്ട ഉപയോഗിച്ചുമൊക്കെ ഓരോരുത്തര് ഓരോ കാര്യങ്ങള് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അതൊന്നുമല്ല ചെയ്യുന്നത് ഞാൻ ജസ്റ്റൊരു കാർഡ്ബോർഡ് കാണുമ്പോള് കാർഡ്ബോർഡിനകത്ത് പെയിൻ്റിങ്ങ് അടിച്ചിട്ട് എന്തേലും വരയ്ക്കുകയോ അല്ലെങ്കില് അത് കട്ടെയ്തെട്ട് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കും ഓരോരോ കാര്യങ്ങള് ഫ്ലവേഴ്സ് ഉണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങള് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിനെപ്പറ്റി എനിക്ക് വലിയ രീതിയിലുള്ള അറിവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ചെയ്യുന്നത് എൻ്റെതായ രീതിയില് എൻ്റെതായ ശൈലിയിലാണ് ഞാൻ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള കേരളത്തിൻ്റെ കലാ കരകൗശല രീതിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല